നമ്മുടെ സംസ്കാരം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ചുമതലയാണ് കാരണം തലമുറ തലമുറ കൈമാറാൻ ഇത് ചെയ്യാൻ കിട്ടിയ സംസ്കാരം സംരക്ഷിക്കുകയും വരും തലമുറകളിലേക്ക് അത് പകർന്ന് കൊടുക്കുകയും വേണം അതുപോലെ തന്നെ പൈതൃകവും സംസ്കാരത്തിൽ വരുന്നത് വസ്ത്രരീതി വസ്ത്രരീതിയെ പറ്റി പ പറ്റി പറയുവാണെങ്കിൽ പഴയ വസ്ത്രം രീതിയല്ല ഇപ്പോൾ ഈ തലമുറയിലെ വസ്ത്ര രീതി പഴയ വസ്ത്രം പഴയ കാലത്ത് കാർന്നമ്മാർ അവർ പറയുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മക്കൾ ധരിക്കുവുള്ളു ഇന്നത്തെ കാലത്താണെങ്കിൽ മക്കൾക്ക് ഇഷ്ട്ടപ്പെടുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളാണ് അവർ ധരിക്കുന്നത് അതേപോലെ തന്നെ ഭക്ഷണത്തേ പറ്റി പറയുവാണെങ്കിൽ പണ്ട് കാലത്ത് ഇഷ്ട്ടം പോലെ വയലുണ്ടാകും കരയുണ്ടാക്കും വയലിലാണെങ്കിൽ ഇഷ്ട്ടം പോലെ നെൽകൃഷി ചെയ്ത് നമ്മൾ നെല്ലുണ്ടാക്കും ഇഷ്ട്ടം പോലെ പച്ച നെല്ലായാലും കിട്ടും നമുക്ക് അതേപോലെ കരയിലാണെങ്കിൽ ഇഷ്ട്ടം പോലെ കപ്പയായാലും ചേനയായാലും അതേപോലെ ഇഞ്ചി കാച്ചിൽ ചേമ്പ് ഇതെല്ലം നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കും അതേപോലെ ചക്കേട കാലത്താണെങ്കിലും ഇഷ്ട്ടം പോലെ ചക്കയുണ്ടാകും ചക്കപ്പഴം കൊണ്ട് പല വിഭവങ്ങൾ നമുക്കൊണ്ടാക്കാം അതുപോലെ ചക്ക പുഴുങ്ങിയിട്ടായാലും ഇഷ്ട്ടം പോലെ ഉണ്ടാക്കും ബാക്കി വരുന്ന ചക്കകളൊക്കെ നമ്മൾ ഉണക്കി വെച്ച് അത് മഴക്കാലത്ത് നമ്മൾ സാധാരണ പുഴുക്കുണ്ടാക്കി ഭക്ഷിക്കും അതേപോലെ കപ്പയാണേലും കപ്പ ഇഷ്ടം പോലെ ഉണക്കി വെക്കും അത് നമ്മൾ പച്ച കപ്പ തീരണ സമയത്ത് നമ്മൾ ആ ഉണക്ക കപ്പ എടുത്തിട്ട് അത് നമ്മൾ ഇഷ്ട്ടം പോലെ ഉപയോഗിക്കും പിന്നെ ഭാഷകളെ പറ്റി പറയുവാണെങ്കിൽ ഇപ്പോൾ എല്ലാ മക്കളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലാണ് പഠിക്കുന്നത് പിന്നെ ഇപ്പോഴത്തെ മക്കൾലെ എല്ലാവരും വിദേശത്താണ് പോയി പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഭാഷയാണ് അവർ പഠിച്ചിരിക്കുന്നത് മലയാളം ഇപ്പം മലയാളം ചുരുക്കി പറഞ്ഞാൽ മലയാളം പഠിക്കുന്ന മക്കൾ കുറവാണ് പിന്നെ പെരുമാറ്റത്തെ പറ്റി പറയുവാണെങ്കിൽ പഴയ കാലത്തെ കാർന്നോമ്മാർ വള വരുവാണെങ്കിൽ മക്കളൊന്നു എണീറ്റ് കൊടുക്കുവോക്കെ ചെയ്യും ഇപ്പോഴത്തെ തലമുറയോടും മക്കളോടും നമ്മൾ അത് പറഞ്ഞ് കൊടുക്കണം എന്താ ചെയ്യേണ്ടെങ്കി എങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് മക്കളോട് പറഞ്ഞ് കൊടുത്താലെ മക്കൾക്കതിനെ പറ്റിയുള്ള അറിവുള്ളു പിന്നെ പൈതൃകത്തെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന പഴയ ഓരോ അവശേഷിക്കുന്ന കാര്യങ്ങളും തേടി പോകാതെ കേടുവരുത്താതെ സംരക്ഷിക്കേണ്ടത് ചുമതല നമ്മുടേതാണ് അതേപോലെ എല്ലാം നശിച്ചു പോകാതെ നമ്മുടെ മുതലാണത് നമ്മളത് കാത്ത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് അതേപോലെ ജെയ്ന അമ്പലത്തെ പറ്റി പറയുവാണെങ്കിൽ അത് ചുറ്റും കല്ലും കൊണ്ട് കെട്ടിയ ഒരു അമ്പലമാണ് അതിനെ ഇത് ഇത്രേം കാലമായിട്ട് അതിന് ഒരു കേടുപാടും നോക്കാതെ സംരഷിക്കാണിച്ചിട്ടൊണ്ട് അതേപോലെ അത് ഇനി തുടർന്ന് നമ്മൾ ഓരോ വ്യക്തിയും അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ്